ഹലോ ഞാൻ വിവേകാനന്ദാ ട്രാവെൽസ് എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായി എനിക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എന്നെ പിക്ക് അപ്പ് ചെയ്തിട്ട് കോഴിക്കോട് മൊത്തം കറങ്ങാൻ എന്നുപറഞ്ഞിട്ടുള്ള രീതിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായി എന്നാൽ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഡ്രൈവർ ഇതുവരെ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയില്ല അത് അത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഞാൻ എൻ്റെ ടിപ്പ് ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എനിക്ക് വേറെ ഒരു സ്റ്റേയ്ക്ക് ആയിരിക്കും ഞാൻ റീഷെഡ്യുൾ ചെയ്യുന്നത് സൊ അതുകൊണ്ട് ഈ ഒരു ക്യാബ് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ താല്പര്യമുണ്ട് റദ്ദാക്കാൻ താല്പര്യം ഉണ്ട് ഈ ഒരു ഡ്രൈവർ അല്ലാതെ വേറെ ഒരു ഡ്രൈവറിനെ വെച്ച് പിന്നെയും ഒന്നുകൂടി ബുക്ക് ചെയ്യാനും താല്പര്യമുണ്ട്